തീര്ച്ചയായും പഴയ തലമുറകാര് ചെറുപ്പക്കാരെക്കാള് കുടൂതല് മതവിശ്വാസികള് ആയിരുന്നു കാരണം അവര് മത അധിഷ്ഠിതമായ ഒരു ജീവിതം തന്നെയാണ് മുന്നോട്ട് നയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പഴയ തലമുറയിലുള്ള ആള്ക്കാർ മറ്റൊരു മത വിഭാഗത്തിലുള്ളവരുമായിട്ട് യാതൊരു കാരണവശാലും വിവാഹം നടത്താനോ നടത്തി കൊടുക്കാനോ ഒന്നിനും സമ്മതമല്ലായിരുന്നു അതേസമയം ഈ പുതിയ തലമുറയിലെ ആള്ക്കാര് വിവാഹം കഴിക്കുന്നതിലും കഴിപ്പിക്കുന്നതിലും മറ്റൊരു മതത്തില് നിന്നുള്ള വ്യക്തിയെ ആണെങ്കില് അവര്ക്ക് യാതൊരു എതിര്പ്പും കൂടാതെ അത് സമ്മതിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു വിവാഹത്തിന്റെ കാര്യങ്ങള് മാത്രമല്ല ഓരോ എന്താ പറയുക ഓരോ കാര്യങ്ങള് ചെയ്യുന്നതിനും സമൂഹത്തിലേക്ക് മുന്നിലേക്ക് വരാന് വേണ്ടി തന്നെ ഇപ്പം മത മതം ഒരു ഘടകമേ അല്ല കാരണം പണ്ട് കാലങ്ങളില് മതത്തില് മുന്പന്തിയില് നില്ക്കുന്നവര്ക്ക് മാത്രമേ സമൂഹത്തിന് മുമ്പില് ഒരു മേധാവിത്വം ഒരു സ്ഥാനം എന്ത് ഉണ്ടാകുന്നു അതേ സമയം ഇപ്പോള് സമൂഹത്തിന്റെ മുമ്പില് എത്തുന്നതിന് മത മതത്തിന് താന്ന ഒരാളാണെങ്കിൽ പോലും അയാള്ക്ക് ആ പ്രമുഖ സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ ഭരണഘടന ഒട്ടും എതിരല്ല പക്ഷേ പഴയ പഴയ കാലഘട്ടത്തില് ആണെങ്കില് നമ്മള്ക്ക് ഉയര്ന്ന മതത്തിലുള്ളവരുടെ മുന്നില് കൂടി പോകാന് പോലുമുള്ള യോഗ്യത അല്ല യോഗ്യതയെന്നല്ല അവകാശം ഉണ്ടായിരുന്നില്ല അതേ സമയം അതില് നിന്നൊക്കെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്ത് സംഭവിച്ചിരിക്കുന്നത്